നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നമ്മൾ പാചക വിധികൾ കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ റെസിപ്പി കൃത്യമായിട്ട് എഴുതി കൊടുക്കും അതായത് ഇപ്പോൾ എന്താണ് അതിലേക്ക് വേണ്ടത് ചേരുവകൾ അത് കൃത്യമായി എത്ര നേരം കൊണ്ട് കുക്ക് ചെയ്യാം അതിൽ എത്ര മന്നെ എത്ര നേരം കൊണ്ട് എത്ര പൊടികൾ ചേർക്കാം എത്ര നേരം എന്തൊക്കെ അതിൽ ആവശ്യമായ സാധനങ്ങൾ അതൊക്കെ കൃത്യമായ് എഴുതി അവർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യാറുള്ളത് അത് ഇപ്പം ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇപ്പം ഒരു ചിക്കൻ കറിയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് അതിനാവശ്യമായുള്ള ചിക്കൻ അതിനനുസരിച്ചുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി മസാലപ്പൊടി അതൊക്കെ കൃത്യമായ അളവ് അതായത് എത്ര ടീസ്പൂൺ വേണം എത്ര ടീസ്പൂൺ ഓയില് വേണം എത്ര ടീസ്പൂൺ വെള്ളം വേണം എത്ര കുക്ക് ചെയ്യാനുള്ളത് എത്ര ടൈമ് വേണം അതൊക്കെ കൃത്യമായ് എഴുതിയിട്ടാണ് നമ്മൾ അത് മറ്റുള്ള കൊടുക്കുന്ന വ്യക്തിക്ക് നമ്മൾ അത് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ ചെയ്യുന്നത് ഇനി എന്തെങ്കിലും അയാളുടെ തര അയാൾ ആദ്യത്തെ വട്ടം അത് ട്രൈ ചെയ്തിട്ട് അതിലെന്തെങ്കിലും കേടുപാട് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നെ വിളിച്ച് പറയുമ്പം നമ്മൾ അതനുസരിച്ച് കുറവുകൾ അയാളിൽ വന്നിട്ടുള്ള കുറവുകൾ നമ്മൾ നികത്തി കൊടുക്കും ചിലപ്പോൾ അത് ചിക്കൻ കുറവായിരിക്കാം അല്ലെങ്കിൽ ചിക്കൻ വേവിച്ച ടൈമ് വ്യത്യാസം വന്നിരിക്കാം അല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ അതിൽ ചേർത്ത എരിവ് അതായത് മുളകുപൊടി മല്ലിപ്പൊടി അതിൻ്റെ കളറ് വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പം അതനുസരിച്ച് നമ്മൾ അത് വീണ്ടും അവർക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കും അതും എന്നിട്ടും അയാൾ ശരിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ ചെന്ന് അവരെ പഠിപ്പിച്ച് കൊടുക്കുകയാണ് നമ്മൾ സാധാരണ നമ്മളെ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അത് ഇപ്പോൾ പല നോൺ ആയിക്കോട്ടേ വെജ് ആയിക്കോട്ടെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ നോൺ ചെയ്യുന്നതിനേക്കാളും ഉപരി ഇപ്പോൾ വെജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അത് കൃത്യമായിട്ട് പറഞ്ഞ് കൊടുക്കും കാരണം വെജിനാവുമ്പോൾ നമ്മൾക്ക് അറിയാം കൃത്യമായ അളവില്ലെങ്കിൽ അതിന് ഒരു ടേസ്റ്റ് വരില്ല ഇപ്പം ഡസേർട്ട് ആയിക്കോട്ടെ ചിലപ്പോൾ പായസങ്ങളാവാം കറികളാവാം ഉപ്പേരികളാവാം തോരനായിരിക്കാം ഫ്രൈയ്യായിരിക്കാം അപ്പോൾ പലപ്പോഴും നമ്മൾ അത് ചെയ്യാറുള്ളത് കൃത്യമായ റെസിപ്പി നമ്മൾ അതിനുണ്ടാക്കി കൊടുത്ത് കൃത്യമായി കാണിച്ച് കൊടുത്ത് എന്നിട്ടും മനസ്സിലായില്ല അറ്റ് ലീസ്റ്റ് വീഡിയോ എങ്കിലും നമ്മൾ ഫോട്ടോ ഫോട്ടോ അല്ല ഒരു വീഡിയോ എടുത്ത് കൃത്യമായി ഉണ്ടാക്കുന്ന വിധം അടക്കം നമ്മൾ അവർക്ക് സെൻഡ് ചെയ്യാറാണ് നമ്മൾ സാധാരണ പതിവ് അതിൽ നിന്ന് വ്യത്യാസമായി നമ്മക്ക് ലഭിക്കുന്ന അപ്പോൾ നമ്മൾ ഒരു ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും എന്ത് സാധനമായാലും നമുക്ക് ലഭിക്കുന്ന ക്വാളിറ്റി അതായത് ആ ഫുഡിൻ്റെ ചിക്കൻ്റെയോ മട്ടൻ്റെയോ നമ്മൾ ആ കിട്ടുന്ന വ്യത്യാസം ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന ചിക്കാനായിരിക്കില്ല ആ വ്യക്തിക്ക് കിട്ടുന്നത് അപ്പോൾ എനിക്ക് ടേസ്റ്റില്ലാത്തതും ചിലപ്പോൾ അയാൾക്ക് ടേസ്റ്റുള്ളതായിരിക്കാം അയാൾക്ക് ടേസ്റ്റുള്ളതും നമുക്ക് ടേസ്റ്റില്ല അപ്പം ആ ഒരു വ്യത്യാസം നമ്മൾ എന്തായാലും കണ്ടേ പറ്റൂ അതിപ്പോൾ നമ്മൾക്ക് കോമണായിട്ടൊരു വ്യക്തിക്ക് കിട്ടിയ അതെ സാധനം തന്നെ മറ്റേ വ്യക്തിക്ക് കിട്ടണമെന്ന് യാതൊരു വക നിർബന്ധവുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വിധത്തിൽ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കാറാണ് ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്നത്